നല്ല നിലവാരമുള്ള കോഴികളെ നമുക്കു മനസ്സിലാക്കുന്ന രീതികളെന്നു വെച്ചു കഴിഞ്ഞാൽ കോഴികളെ കാണുമ്പോൾ നമുക്കവരുടെ കണ്ണ് ചുണ്ട് പിന്നെ കോഴിയുടെ ഓരോ ശരീരത്തിൻ്റെ പ്രകൃതീയ രീതികൾ കാണുമ്പം നമുക്കു മനസ്സിലാകും എന്തു തരമുള്ള കോഴികളായിരിക്കും അവർക്ക് എന്തിനോടായിരിക്കും എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ എന്നു മനസ്സിലാകും പിന്നെ കുറേ നാൾ നമ്മൾ വീട്ടിൽ കോഴികളെ വളർത്തി കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി അതിനോടുള്ള തൻ്റെ ബോഡിയിലല്ലെങ്കിൽ കോഴിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്കു പെട്ടെന്നറിയാൻ പറ്റും കാരണം എന്നാൽ ഇപ്പം ഒരേ ആഴ്ചയായിട്ട് ഇപ്പം കുറേ ഫുഡ് കോഴിക്ക് ഫുഡ് കൊടുക്കുന്നു കോഴി ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് പറയാം അറിയാൻ പറ്റും കോഴിക്ക് നമ്മളോട് അല്ലെങ്കിൽ കോഴിക്ക് എന്തെങ്കിലും ആരോഗ്യപ്രശ്നം കാണും അതുകൊണ്ടായിരിക്കും തന്നിരിക്കുന്നത് ഫുഡ്ഡൊന്നും കഴിക്കാത്തതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാ മനസ്സിലാക്കാൻ സാധിക്കും അതു പോലെ തന്നെ എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും പ്രകൃതിയുമായിട്ട് അവർക്ക് ഇണങ്ങി ചേരാൻ പറ്റാത്തൊരു അവസ്ഥ വരും എന്തെങ്കിലും ചില വീട്ടിലെ സാഹചര്യം വൃത്തിയില്ലായ്മ മൂലങ്ങളൊക്കെ കൊണ്ട് അവർക്ക് ചിലപ്പം നിൽക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനത്തെ ഒരു ഇതു വരുമ്പം കോഴിക്കെന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ കോഴികൾക്കിപ്പം പ്രകൃതിയോട് പ്രകൃതി പര കോഴിയാകുമ്പം പല സ്ഥലത്തു പോയി പലതും കൊത്തി തിന്നുന്ന ഒരു രീതിയായതു കൊണ്ടു തന്നെ കോഴികൾക്കായാലും അസുഖം ഉണ്ടാകാൻ നല്ല ചാൻസുണ്ട് അതുപോലെ തന്നെ കോഴികൾ കോഴികളിൽ വളർത്തുന്ന ചുറ്റുപാടുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതാണ് അതും നല്ലതു പോലെ വൃത്തിയായിരിക്കണം അവരുടെ അവ കോഴികൾ താമസിക്കുന്ന കൂടുകൾ ആയാലും

എന്നാൽ എന്നാൽ ചിലപ്പം നമ്മൾ കൊടുക്കുന്ന മനുഷ്യർ കൊടുക്കുന്ന ഫുഡ്ഡിൻ്റെ രീതി കൊണ്ടായിരിക്കാം അങ്ങനെ ആയിരിക്കും അവർക്കപ്പം അവരോടു നമുക്ക് ഇണ ചേർന്നു നിൽക്കാനും ഒന്നിനും സാധിക്കും